ഹലോ ഞാൻ ഈ സോളോ ട്രിപ്പ് ഒക്കെ പോവാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ എനിക്ക് എനിക്ക് പറ്റിയൊരു ഡെസ്റ്റിനേഷൻ പറഞ്ഞ് തരാൻ നിങ്ങളുടെ നിങ്ങൾക്ക് സാധിക്കുമോ എനിക്ക് കൂടുതൽ ഈ ഷോപ്പിങ്ങ് ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ഥലങ്ങളാണ് താൽപ്പര്യം കാരണം എനിക്കെൻ്റെ കുടുംബത്തിൽത്തെ ആൾക്കാർക്കും എൻ്റെ അനിയനും അനിയത്തിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊണ്ട് പോവണം അവിടെ പോയി വരുമ്പോൾ ഒക്കെ കൈ നിറയെ സാധനങ്ങളായിട്ട് വേണം എനിക്ക് പോവാൻ എനിക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണിഷ്ടം ഓ മുബൈയിൽ ഒരുപാട് ഷോപ്പിംഗ് മാൾസ് ഒക്കെ ഉണ്ടാവുമോ ഈ എനിക്കും ഇപ്പോൾ തോന്നുന്നുണ്ട് മുംബൈ ഒരു നല്ല സ്ഥലമാണെന്നുള്ളത് അവിടെ ഒരുപാട് ഷോപ്പിംഗ് മാൾസ് ഒക്കെ ഉണ്ടാവുമോ ഓക്കെ അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അങ്ങോട്ട് തന്നെ പോവാൻ ശ്രമിക്കാം എനിക്ക് ബാക്കി എത്രയായിരിക്കും അങ്ങോട്ട് പോവാനുള്ള ചാർജസും കാര്യങ്ങളെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ ഒരു ആ ഒരാഴ്ച അത് മതിയാവും ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ അത് ഓപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ആ ഞാൻ അത് ഓപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ എന്താണ് എത്രയും പെട്ടെന്ന് നിങ്ങളത് എനിക്ക് വേണ്ടി ബുക്ക് ചെയ്ത് തരുമോ അതെ അതെ തീർച്ചയായും ഓക്കെ ആണ് ഓക്കെ ഒരുപാട് നന്ദി ഓക്കെ ഉം